ബൈക്ക് എന്ന് പറയുന്നത് ഒരു യാത്രാ സുഹൃത്ത് മാത്രമല്ല ഒരു വിശ്വസ്തൻ കൂടി തന്നെയാണ് അതിനാൽ തന്നെ അതിൻ്റെ പരിപാലനവും ശുചിത്വവും ശ്രദ്ധയും ആവശ്യവും വളരെയധികം ഉള്ളതാണ്

ഡ്രൈവ് ഡ്രെയിൻ എന്നിവ നീര് കൊണ്ട് കഴുകി മൃദലമായ തുണി ഉപയോഗിച്ച് ഞാൻ വൃത്തിയാക്കാറുണ്ട് മണ്ണ് തണുപ്പ് ഓയിൽ എന്നിവ ബൈക്കിൻ്റെ പ്രവർത്തന ക്ഷമതയെ ബാധിക്കുമെന്നതിനാൽ ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്

ബ്രേക്ക് പാഡും കേബിളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗിയർ മാറുന്നതിൽ തടസമുണ്ടോ എന്ന് നോക്കി ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ് ചെയ്യുന്നു

മറ്റൊരു കാരണമാണ് ശാരീരിക ക്ഷീണം പ്രത്യേകിച്ച് വലിയ ഉയരങ്ങൾ കയറുമ്പോൾ മനസ്സിൽ ഇനിയും വേണോ എന്ന ചിന്ത ഉയരാം

ഫലങ്ങൾ പോലുള്ള എളുപ്പത്തിൽ കിട്ടാവുന്ന എനർജി ഫുഡുകൾ കഴിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമായും യാത്രയുടെ ആസ്വാദനമാണ് നമുക്ക് വേണ്ടത് ഞാൻ യാത്രയെ ഒരു ഫിനിഷ് ചെയ്യേണ്ട ഒരു ടാർഗെറ്റ് ആയിട്ടല്ല കാണുന്നത് പകരും അതിൻ്റെ ഓരോ ഘട്ടവും ആസ്വദിക്കാനാണ് ശ്രമിക്കുന്നത്